വിദ്യാർത്ഥികള് ഇപ്പോള് കൂടുതലായിട്ടും പുറത്തുപോയി പഠിക്കാനായിട്ടാണ് താല്പര്യം കാണിക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് വളരെ കൂടുന്നു അതുപോലെ തന്നെ വരുമാനം കുറയുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ പുറത്തുപോയി പഠിക്കുന്നതിനോടാണ് വിദേശ രാജ്യങ്ങളില് പോയി പഠിക്കുന്നതിനോടും അതുപോലെ തന്നെ വിദേശരാജ്യത്ത് തന്നെ പഠിച്ച് ജോലി വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികള് കൂടുതലും കാണിക്കുന്നത് അവര് തെരഞ്ഞെടുക്കുന്ന മേഖലകള് കൂടുതലും ഐ ടി മേഖലകള് തന്നെയാണല്ലോ ഐ ടീ അതുപോലെ തന്നെ ഇപ്പോള് പുതിയ എ ഐ എ ഐ എന്നുപറയുന്നൊരു സംവിധാനം വരുന്നുണ്ടല്ലോ അങ്ങനെ അതിനകത്തൊക്കെ ചേർന്ന് പഠിക്കാനായിട്ടാണ് അവര്ക്ക് കൂടുതല് താല്പര്യം കാരണം ജോലി സാധ്യത നോക്കിയാണല്ലോ പഠിക്കുന്നത് കൂടുതല് ജോലി കിട്ടുന്ന മേഖലകള് നോക്കി എടുത്ത് പഠിക്കുകയാണെങ്കില് അത് അതല്ലേ അതിന് വേണ്ടിയാണല്ലോ കുട്ടികള് ശ്രമിക്കുന്നതും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ജോലി നേടുകയെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയാണ് അവര് പഠിക്കുന്നത് അപ്പോള് വിദ്യാഭ്യാസമെന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ഉദ്ദേശം നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചാല് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെന്തെങ്കിലും പഠിച്ചാലും അതുകൊണ്ട് ഒരു നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടണമെങ്കില് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ പറഞ്ഞുകേള്ക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതല് കുട്ടികളും വിദേശ രാജ്യത്തേക്ക് പോയി ഒരു ജോലി സമ്പാദിക്കാനായിട്ടാണ് പോയി പഠിക്കാനായിട്ടാണ് താല്പര്യം കാണിക്കുന്നത് അവിടെ പോയി പഠിച്ചുകഴിഞ്ഞ് അവിടെത്തന്നെ ഒന്നാമത്തെ കാര്യം അവിടെ പഠിക്കുമ്പോള് തന്നെ സൈഡായിട്ട് നമുക്ക് ജോലി ചെയ്യാം ജോലി ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് തന്നെ അവിടെ പഠിക്കാനുള്ള പഠന ചെലവിനായിട്ട് അവർക്ക് ഉപയോഗിക്കാന് പറ്റുന്നുണ്ടെന്നാണ് അവര് പറയുന്നത് അതുകൊണ്ട് കൂടുതല് പേരന്റ്സിനെ അത്രയും കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചാല് മതിയല്ലോയെന്ന് കരുതി കുട്ടികള് കൂടുതലും വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷ അതാണ് ഏറ്റവും വലുത് വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ സുരക്ഷിതരായിട്ടിരിക്കാൻ സാധിക്കുന്നുവെന്നുള്ളതാണ് കേരളത്തിലിപ്പം ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സുരക്ഷിതത്വമില്ലാത്തൊരു കാലം അതുപോലെ തന്നെ ലഹരിയുടെ അമിതമായിട്ടുള്ളൊരു ലഹരിയുടെ അതിപ്രസരം കേരളത്തിലിങ്ങനെ ഓരോ ദിവസവും വർധിച്ചുവരുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ കേരളത്തില് പഠിപ്പിക്കാനും പഠിക്കാനും പഠിക്കാൻ കുട്ടികൾക്കും താല്പര്യമില്ല പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്കും താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് എന്തായിതീരും ഇവിടെ എന്നോർത്തിട്ട് അങ്ങനെയൊരു ആകുലത കൊണ്ടുംകുടിയാണ് കുട്ടികളെ കൂടുതലും വിദേശ രാജ്യത്തേക്ക് പറഞ്ഞുവിടാനായിട്ട് താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ട് കുട്ടികള് തെരഞ്ഞെടുക്കുന്ന മേഖലകള് അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് ജോലി സാധ്യത കിട്ടുന്ന മേഖലകള് നോക്കി അവര് പഠിക്കുന്നു പഠിച്ച് ജോലി വാങ്ങിക്കുക എത്രയും പെട്ടെന്ന് അതായത് കൂടുതല് കൂടുതല് കാലം പഠിക്കാതെ കുറച്ചുകാലം പഠിച്ചുകൊണ്ട് നല്ലയൊരു ജോലി സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തോട് ഇപ്പോള് എട്ട് വർഷത്തെ കോഴ്സ് ഉണ്ട് നാല് വർഷം കൊണ്ട് പഠിക്കാവുന്ന കോഴ്സുകളുണ്ട് ഇപ്പോള് എട്ട് വർഷം ഡിഗ്രി എടുത്ത് അതുകഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ കോഴ്സും കൂടെ പഠിച്ച് ജോലി സമ്പാദിക്കുന്നതിനെക്കാളും നല്ലത് ഈ നാല് വർഷം കൊണ്ട് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കാനുള്ളതാണ് കുട്ടികള് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണവര് അതിന് പറ്റിയ ഒരു കോഴ്സുകളൊക്കെ ആലോചിക്കുന്നതും ഐ ടി മേഖലയെ കൂടുതലായിട്ട് അവര് താല്പര്യം കാണിക്കുന്നതും എല്ലാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പം കാർഷിക മേഖലയോട് വലിയ താല്പര്യമൊന്നുമില്ല കാർഷിക മേഖലയില് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല അവർക്കെല്ലാം ഐ ടി മേഖലകളിലാണ് താൽപര്യം കാരണം ജോലിസാധ്യത ഓർത്തിട്ട് വരുമാനം ഓർത്തിട്ട് കാരണം കൃഷി മേഖലയൊക്കെ വളരെ മോശമാണ് കാർഷിക മേഖലകളിലൊന്നും വലിയ മെച്ചമൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും തന്നെ ഐ ടി മേഖലകളിലാണ് വിദ്യാഭ്യാസത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട്